പാലക്കാട് ജില്ലയിലെ ശ്രദ്ധേയമായ ലാൻഡ് മാർക്ക് ആണ് ടിപ്പുവിൻ്റെ കോട്ട ഇത് ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് ടിപ്പുവിൻ്റെ നമ്മുടെ സ്വാതന്ത്യ സമര യുദ്ധകാലത്ത് ടിപ്പു ഒളിച്ചിരുന്ന സ്ഥലമാണ് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ കോട്ട എല്ലാവർക്കുമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് കോട്ടയിൽ കയറാൻ പ്രത്യേകം പെർമിഷനോ ഒന്നും ആവശ്യമില്ല അതിനകത്ത് ഒരു ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രവും അതിനകത്ത് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ ജയിലും സംവിധാനം ചെയ്തിരിക്കുന്നത് പിന്നെ പാ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ കുറേ അധികം ഡാമുകൾ ഉണ്ട് മലമ്പുഴ ഡാം വാളയാർ ഡാം മംഗലം ഡാം അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ അതിസുന്ദരമായ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് നെല്ലിയാമ്പതി അതിലെ വളരെയധികം ജനങ്ങൾ ടൂറിസത്തിനായിട്ടും അല്ലെങ്കിൽ ദർശനത്തിനൊക്കെയായി കാണാൻ ആയിട്ടൊക്കെ പോകുന്നത് കൊണ്ട് അവിടെ വളരെയധികം നല്ല സ്ഥലവും ഭൂപ്രകൃതിയുള്ള പ്രകൃതിയാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെയെല്ലാം ഗവൺമെന്റിൻ്റെ ഓറഞ്ച് ഫാമ് തുടങ്ങിയ വലിയ വലിയ ഫാമുകളെല്ലാം ഉണ്ട് മാത്രമല്ല അട്ടപ്പാടിയിലെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് സൈലൻറ് വാലി സൈലൻറ് വാലി ദേശീയ ഉദ്യാനത്തിലേക്ക് പോകണമെങ്കിൽ മുമ്പ് കൂട്ടി നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പെർമിഷൻ എടുത്തിട്ട് വേണം പോകാൻ സൈലന്റ് വാലിയിലേക്ക് പോകുമ്പോൾ അവരുടെ വണ്ടിയിലുമാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വണ്ടി ഒരു പരിധി കഴിഞ്ഞാൽ തടഞ്ഞു വെച്ച് അവ ഗവൺമെന്റിൻ്റെ വണ്ടിയിൽ വേണം യാത്ര ചെയ്യാനായിട്ട് അതേപോലെ പാലക്കാട് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് പൊത്തൂർ ശ്രീ തിരുപുരയ്ക്കൽ ക്ഷേത്രം അവിടെ ധാരാളം ഉത്സവങ്ങൾ കുറേ ദിവസങ്ങൾ നടക്കാറുണ്ട് ദിവസങ്ങളിലായിട്ട് നടക്കാറുണ്ട് പ്രത്യേക വിശേഷം തിരുപുരയ്ക്കൽ ഭഗവതിയുടെ വേല കൂടാതെ നിറമാല അങ്ങനെയെല്ലാ ഉത്സവങ്ങളും അവിടെ വച്ച് ആ അമ്പലത്തിൽ നടക്കാറുണ്ട്